അതെ അതെ ഞാൻ ഞങ്ങളിപ്പം ഡി ദീപിക മലയാള മനോരമ കേരളകൗമുദി മാതൃഭൂമി നാലിൻ്റെയും ഞങ്ങളാണിവിടുത്തെ സബ് എഡിഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏത് ഏത് പത്രമായിരുന്നു സാറിന് വേണ്ടത് ഏത് പത്രമായിരുന്നു ആ ദീപിക മനോരമ ഓക്കെ ആ ഇത് ഏത് ലൊക്കേഷനൊന്ന് പറയാവോ ആ കുറിച്ചിക്കലവിടെ ഞങ്ങക്കാൾറെഡി ഒക്കെ ഇതുള്ളതാണ് ഞങ്ങൾ ആൾറെഡി പത്രം പത്രം കൊടുക്കുന്നതാണ് ആ ഓക്കെ ആ നാളെ മുതൽ ഞങ്ങളുടെ അവിടെ പത്രം ഇടുന്നത് മായേന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ് അപ്പം ദീപികയും മലയാള മനോരമയല്ലേ വേണ്ടത് സാറിന് പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും സപ്ലൈ ചെയ്യുന്നുണ്ട് മാഗസിൻസൊക്കെയുണ്ട്

ഓക്കെ മാഗസിൻസുണ്ട് വിത്ത് ദ വീക്ക് ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ കളക്ഷൻസ് ഗൂഗൂ ഗൂഗിൾ പേ ചെയ്യാൻ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺ സ്പോട്ട് വന്ന് ക്യാഷ്യയിട്ട് പേയ്മെൻറ്റ് നമ്മൾ റിസീവ് ചെയ്യാറുണ്ട് ഓക്കെ അത് നമ്മളഡ്വാൻസായിട്ടൊന്നും വാങ്ങുന്നില്ല ഒരു മാസം പത്രം സബ് വിതരണം ചെയ്തതിന് ശേഷം എൻഡ് ഓഫ് ദ ഡേയില് നമ്മളൊരു വേറെ ഫീ ബില്ല് തരും ബില്ല് തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയായിരിക്കും ആ ഞാൻ ഞങ്ങളുടെ സ്റ്റാഫ് മായയുണ്ട് മായയോട് പറഞ്ഞേക്കാം നാളെ മുതൽ അവിടെ സാറിന് പേപ്പറിട്ടേക്കുവായിരിക്കും ഓക്കെ ഓക്കെ താങ്ക് യൂ